കായികരംഗത്ത് നോക്കിക്കഴിഞ്ഞാല് വനിതകളുടെ പ്രതിനിധ്യം വളരെ കൂടുതലാണ് ഇപ്പോള് നമ്മുടെ ഇന്ത്യയില് നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് വനിതാ കായിക താരങ്ങള് ഉണ്ട് എന്ന് പറയുമ്പോള് പി വി സിന്ധു ഉണ്ട് പിന്നാ മീര ഭായ് ചാനു ഉണ്ട് നിഖത് സരീൻ ബോക്സ്സര് ഉണ്ട് പിന്നെ മേരി കോം ഉണ്ട് അങ്ങനെ ഒരുപാട് പിന്നെ ക്രിക്കറ്റില് ഇന്ത്യ ഒരുപാട് മുന്നിലാണ് വനിതാ ക്രിക്കറ്റില് ഈയിടെ തന്നെ സൗത്ത് ആഫ്രിക്കയുമായി വനിത ക്രിക്കറ്റില് ഇവര് കളിച്ചിരുന്നു പിന്നെ വനിതാ ക്രിക്കറ്റില് ഹർമന് പ്രീത് കൗർ പിന്നെ നമ്മുടെ മല്ലീശ്വരിയോ അങ്ങനെ എന്തോ ഒരു പ്ലെയർ ഉണ്ട് പിന്നെ അങ്ങനെ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട് പിന്നെ സ്ത്രീകള്ക്കും പുരുഷന്മാര്ക്കും കായികരംഗത്ത് ഇപ്പോള് അത്യാവശ്യം മുന്ഗണന കിട്ടുന്നുണ്ട് ഇപ്പോള് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ലാതെ തന്നെ രണ്ടു പേര്ക്കും അവരുടെ കഴിവിനൊത്ത് അവസരങ്ങള് കിട്ടുന്നുണ്ട് പിന്നെ ഈ സ്ഫോര്ട്സ് ഫെഡറേഷന് തര തലത്തില് ഒരുപാട് ഈ പിടിപാടുള്ള ആള്ക്കാരൊക്കെ ക എന്നുവെച്ചാല് അത്രയും കഴിവുള്ള ആള്ക്കാരെ മുന്നില് കയറ്റിവിടാതെ അവര് പിടിപാടുള്ള ആള്ക്കാരെ മുന്നില് കയറ്റിവിടുന്നതായിട്ടും കാണുന്നുണ്ട് പിന്നെ സ്ത്രീകളുടെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു വലിയ ഭാഗം തന്നെയാണ് വനിതകള് ഈ കായികരംഗത്ത് വരുന്നത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു ഒരു ഉത്തമ ഉദാഹരണമായിട്ട് തന്നെ നമുക്കതിനെ കാണാന് പറ്റും ഇപ്പോള് നമ്മള് അങ്ങോട്ട് നമ്മുടെ നോര്ത്ത് ഇന്ത്യയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഇപ്പോള് അമ്മമാര് പെണ് പെണ്മക്കളെ കായിക രംഗത്തേക്ക് കൊണ്ടുവരണമെന്നോ അവരെ ഈ പറഞ്ഞപോലെ കലാകായിക മത്സരങ്ങളില് പങ്കെടുപ്പിക്കണമെന്നോ ഒക്കെ അവര്ക്ക് താല്പര്യം ഉണ്ട് അവരതിന് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് അവര്ക്ക് കോച്ചിങ്ങെല്ലാം കൊടുക്കുന്നുണ്ട് അവിടെ അങ്ങനെ ഒരു ഇത് ഇപ്പോള് കാണുന്നൊണ്ട് അതിപ്പോള് കേരളത്തിലാണെങ്കിലും അല്ലെങ്കില് ഇപ്പോള് തിരുവനന്തപുരം തന്നെ തിരുവനന്തപുരം ജില്ലെ തന്നെ നോക്കിക്കഴിഞ്ഞാല് സ്ത്രീകള്ക്കും പുരുഷന്മാർക്കും ഒരുമിച്ച് ട്രെയിനിംഗ് കൊടുക്കുന്ന ജിമ്മി ജോര്ജ് ഇന്ഡോര് സ്റ്റേഡിയം അവിടെ ബാഡ്മിന്റണ് പോലുള്ള കലാകായിക അല്ല കായിക മത്സരങ്ങള് നടക്കാറുണ്ട് അതിന്റെ കോച്ചിംഗ് കൊടുക്കാറുണ്ട് പരിശീലനം കൊടുക്കാറുണ്ട് അപ്പോള് പരിശീലന സ്ഥാപനങ്ങള് ഒരുപാടുണ്ട് തിരുവനന്തപുരത്ത് നോക്കിക്കഴിഞ്ഞാലുണ്ട് ഇന്ത്യയില് മൊത്തത്തില് നോക്കിയാല് ഒരുപാടുണ്ട് പിന്നെ നിയമപരമായിട്ട് സ്ത്രീകള്ക്കും ഒരു ഈ കായികരംഗത്ത് അവര്ക്കൊരു റെപ്രസന്റെഷന് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ സ്ത്രീകള്ക്ക് കാര്യമായി ശാരീരിക ആനുകൂല്യങ്ങളെപ്പറ്റി പറയാണെങ്കില് അവര്ക്ക് ശാരീരികമായിട്ട് അവര്ക്ക് കായികരംഗത്ത് ഇത് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് ഇപ്പോള് അത് മുന് മുന്പത്തെ സ്ത്രീകളെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ സ്ത്രീകള് കൂടുതലായി കായികരംഗത്തോട്ട് വരുന്നു അതില് കൂടുതല് സമയം പരിശീലനത്തിന്നായി ചെലവഴിക്കുന്നു പിന്നെ ഏറ്റവും പ്രധാനമായി എന്നു പറഞ്ഞാല് സ്ത്രീ ഈ മുന്പ് പുരുഷന്മാര് കായികരംഗത്തേക്ക് കൊണ്ടുവന്നിരുന്നു അച്ഛനമ്മമാര് പക്ഷെ ഇപ്പോള് അങ്ങനെയല്ല പെണ്മക്കളെയും കൂടെ കായികരംഗത്തേക്ക് അച്ഛനമ്മമാര് കൊണ്ടുവരുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് സമൂഹത്തിന്റെ വളരെ നല്ലൊരു മാറ്റമായിട്ടാണ് കാണാന് പറ്റുന്നെ അത് വളരെ നല്ലൊരു കാര്യമാണ് ഈ പറഞ്ഞപോലെ സ്ത്രീകള് കായികരംഗത്തേക്ക് വരുന്നത് ഇന്ത്യക്കൊക്കെ തന്നെ അഭിമാന നിമിഷം തന്നെയാണ് ഇന്ത്യയില്നിന്ന് എത്രയോ വനിതകള് ലോകോത്തര മത്സരങ്ങളില് പങ്കെടുക്കുന്നുണ്ട് ഈ വരാന്പോണ ഒളിമ്പിക്സില് തന്നെ പി വി സിന്ധു മത്സരിക്കുന്നുണ്ട് നിഖത് സരീൻ മത്സരിക്കുന്നുണ്ട് നിഖത് സരീൻ ബോക്സർ ആണ് അവര് വളരെ നല്ല ഒരു ബോക്സർ ആണ് അവര് ഒരുപാട് കഷ്ടതകൾക്കിടയിൽ ഈ സ്ത്രീ പുരുഷനെന്ന ലിംഗഭേദമന്യേ അവര് മുന്നോട്ട് വന്നു അവിടെ പുരുഷന്മാര്ക്ക് കൂടുതല് ഇത് കൊടുക്കുന്ന ഒരിതൊക്കെ ആയിരുന്നെങ്കിലും ബോക്സ്സിങ്ങെന്നൊരു മേഖല കൂടുതലും പുരുഷന്മാര് നിന്നൊരു കായിക മേഖലയാണ് എന്നിട്ടുപോലും ബോക്സിങ് രംഗത്ത് സ്ത്രീ ശക്തിയായി അവര് മുന്നോട്ടുവന്നു അതിലേറ്റവും നമുക്ക് പറയാന് പറ്റുന്നത് മേരികോമാണ് മേരികൊമെന്നു പറഞ്ഞാല് മൂന്ന് മക്കളുടെ അമ്മയാണ് എന്നിട്ട് അവര് അവരുടെ ഭര്ത്താവ് നല്ലപോലെ സപ്പോട്ട് ചെയ്യുന്നുണ്ട് അവരെ നല്ലപോലെ ആ ഒരു അവരുടെ സപ്പോട്ട് കാരണം അവര് മുന്നോട്ടുവന്നു അപ്പോള് ഇങ്ങനെയുള്ള സ്ത്രീകള് മുന്നോട്ട് വരുന്നതും കായികരംഗത്തേക്ക് കടന്നുവന്ന് ഇന്ത്യക്ക് മെഡല് നേടിത്തരുന്നു ചാമ്പ്യന്ഷിപ്പുകള് ജയിക്കുന്നു അതെല്ലാം വളരെ നല്ലൊരു കാര്യമാണ് അപ്പോള് എന്തായാലും ഇപ്പോള് വനിതകളുടെ കായികരംഗത്ത് വനിതകളുടെ പ്രതിനിധ്യം വളരെ ഒരു മികച്ച രീതിയില് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ സര്ക്കാരും അതിന് ഒരുപാട് പദ്ധതികള് ആണെങ്കിലും ഇപ്പോള് സ്കോളര്ഷിപ്പ് കൊടുക്കുന്നത് പോലുണ്ട് സ്കോളര്ഷിപ്പ് കൊടുക്കുന്നുണ്ട് അവര്ക്ക് പഠിക്കാനുള്ള ഇത് പിന്നെ സ്പോര്ട്സ് കോട്ട കൊടുക്കുന്നുണ്ട് സ്ത്രീകള്ക്ക് തന്നെ ഇത്രേ ഗവണ്മെന്റ് ജോലി കിട്ടുന്നുണ്ട് സ്പോര്ട്സ് കോട്ട വഴി മുമ്പ് പുരുഷന്മാര് മാത്രമായിരുന്നു കായികരംഗത്തേക്ക് വരുന്നതും അവര്ക്ക് ജോലി കൊടുക്കുന്നത് ഇപ്പോള് ഗവണ്മെന്റ് സര്വീസില് സ്ത്രീകള്ക്ക് ഒരുപാട് ജോലി കൊടുക്കുന്നുണ്ട് അതും ഈ സ്പോര്ട്സ് കോട്ട ആയിട്ട് ബന്ധപ്പെട്ട് അപ്പഴ് സ്ത്രീകളെയും പുരുഷന്മാരെയും തുല്യരായി കണ്ട് ഈ മത്സരങ്ങള് കായികരംഗത്തേക്ക് കൂടുതല് മത്സരങ്ങള് കൊണ്ടുവരിക അതില് കൂടുതല് ആള്ക്കാരെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഓക്കെ നന്ദി